ഇപ്പോൾ ഇന്ത്യയില് ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാരും അതുപോലെ ഗവേഷകന്മാര് നമുക്ക് നമ്മുടെ ഭാരതത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് ജനിച്ച് വളർന്നിട്ടുണ്ട് അതില് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാണ് പറയുമ്പോൾ എ പി ജെ അബ്ദുൾ കലാം ശ്രീനിവാസ രാമാനുജൻ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുക ഐ എസ് ആർ ഒ ചെയർമാനായിട്ടുള്ള ആള് അതുപോലെ നമുക്ക് ഒട്ടനവധി ഇപ്പോൾ നമ്മുടെ കൽപ്പന ചൗള അത് നമ്മുടെ അത്യാവശ്യം നല്ലൊരു ശാസ്ത്രജ്ഞരും അതുപോലെ അസ്ട്രോനട്സൊക്കെയായിരുന്നു പിന്നെ എന്താ പറയുക നമ്മുടെ ശാസ്ത്രം മാത്രല്ല അത്യാവശ്യം നല്ല ഗണിത ശാസ്ത്രം അല്ലാണ്ട് വേറെ ഫി ഫിസിക്സിലായാലും കെമിസ്ട്രിലായാലും അതുപോലെ ഭൗതിക ശാസ്ത്രം ജനിതക ശാസ്ത്രം എല്ലാ ശാസ്ത്രത്തിലും നല്ല നല്ല ശാസ്ത്രജ്ഞന്മാരെ നമ്മുടെ ഭാരതം നാടിനു നമ്മുടെ ലോകത്തിനു മുമ്പില് കാഴ്ച വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതില് ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ആള് മികച്ചൊരു മാത്തമെറ്റിഷൻ തന്നെയെന്ന് നമുക്ക് പറായാൻ പറ്റും ആള് ആളുടെ ജീവിത കാലഘട്ടം എന്നു പറയണത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴു മുതല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ഇപ്പോൾ ആള് മാക്സിനു അതിൻ്റെതായ നല്ല രീതിലുള്ള കോൺട്രിബൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ എന്നാണ് അയാളുടെ മുഴുവൻ പേര് ആള് ഇപ്പോൾ എന്താ പറയുക മാത്തമാറ്റിക്കൽ അനാലിസിസ് അതുപോലെ നമ്പർ തിയറി പിന്നെ ഇൻഫിനിറ്റ് സീരീസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് ആൾടെ എന്താ പറയുക കയ്യൊപ്പ് പതിച്ചിട്ടുണ്ട് ആള് ഈറോഡ് മൈസൂര് സംസ്ഥാനത്തെ ഈറോഡ് എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് ആള് ആൾക്ക് ബ്രിട്ടീഷിൻ്റെ അതായത് ബ്രിട്ടൻ്റെ സിറ്റിസൺഷിപ്പുണ്ട് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പുണ്ട് ആൾക്ക് കുറെ അതായത് അയാൾടെ എന്താ പറയുക പഠിത്തം കാര്യങ്ങള് അങ്ങനെ നോക്കാണ് പറയുമ്പം ഒരുപാട് കാലം പറയാനുണ്ട് പിന്നെ ഫെല്ലോ ഓഫ് റോയൽ സൊസൈറ്റിന്നു പറഞ്ഞിട്ടൊരു അവാർഡ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആൾക്ക് കിട്ടിയത് ആള് പഠിച്ചത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പിന്നെ അയാൾക്കത്യാവശ്യം നല്ലരീതിലുള്ള എന്താ പറയുക മാക്സിനെ കുറിച്ച് നല്ല അഗ്രഗണ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ അതില് നമുക്ക് പറയുനുള്ള കാര്യങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആളെക്കുറിച്ച് ഒരുപാട് ബുക്ക്സ്കളും കാര്യങ്ങള് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ ജി എച്ച് ഹാർഡ്ലി അതുപോലെ അങ്ങനത്തെ ഫെയിമസ് ആയിട്ടുള്ള ആൾക്കാരങ്ങു ങ്ങ് അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ട് കുറെ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് അയാള് പ്രൈം നമ്പറ് തീറ്റ പാർട്ടീഷൻ ഫോർമുല അങ്ങനത്തെ കുറെ കാര്യങ്ങളില് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കണക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് കാണിച്ചിട്ടുണ്ട് പുലർത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് പതിനേഴോളം രീതിയിലുള്ള പതിനേഴല്ല അതില് കൂടുതല് ആയിട്ടുള്ള സംഖ്യ വിവരണം നമുക്ക് ആൾടെന്ന് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ആണ് ആളേകദേശം എന്താ പറയുക ഒരു രോഗാവസ്ഥേൽ എത്തിയെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ഈ ഡിസെഡ്രി പോലത്തെ കാര്യങ്ങളൊക്കെ പിടിപെട്ട് ആള് ഏക ആ ഒരു അവശതയുള്ള നിലയിലായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മുപ്പത്തി രണ്ടാമത്തെ വയസില് ആള് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു